നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു തനതായ വിഭവമാണ് കപ്പ കപ്പയും ചക്കയും അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒക്കെ നമ്മുടെ ഒരു തനതായ വിഭവങ്ങളിൽ ഉള്ള വസ്തുക്കളാണ് അത് ഭക്ഷണ സാധനങ്ങളാണ് അതിൽ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കപ്പ കപ്പ നമ്മുടെ പറമ്പിൽ സുലഭവായിട്ട് നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് കപ്പ ഈ കപ്പയുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ഇറച്ചി കറികൾ കഴിക്കാം അതുപോലെ തന്നെ മീൻ വിഭവങ്ങൾ അതിൻ്റെ കൂടെ കഴിക്കാം നല്ല മുളകിട്ട് അരച്ച മീൻ കറി അതുപോലെ തന്നെ ഇറച്ചിക്കറി ആണെങ്കിലും നല്ല ഗരംമസാലയൊക്കെ ഇട്ട് ഇറച്ചിക്കറികൾ എരിവ് എരിവ് ഉള്ള കറികളാണ് കപ്പയ്ക്ക് കൂടുതലും നല്ലത് ഈ ഇറച്ചിക്കറിയും മീൻ കറിയും ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് ഒരു മുളക് മുളക് നമ്മൾക്ക് കാന്താരി മുളക് ചാലിച്ച് ഉള്ളിയും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾക്ക് ചാലിച്ചു എണ്ണ ഒഴിച്ച് കഴിക്കുവാണെങ്കിൽ നല്ല രുചിയാണ് അതുപോലെ തന്നെ പത്തല മുളക് ചുട്ട് അരച്ചത് അരകല്ലിൽ വച്ചു നമ്മൾ ചുട്ടരച്ച് ഉള്ളിയും പുളിയും കൂടെ ചേർത്ത് അരച്ചു എണ്ണയിൽ ചാലിച്ച് എടുക്കുന്നതും കപ്പയ്ക്ക് നല്ല ഒരു ടേയിസ്റ്റ് നൽകുന്ന ഒരു കറിയാണ് അതുപോലെ തന്നെ കപ്പയ്ക്ക് നമ്മൾ അരയ്ക്ക്ന്നതിന് പറഞ്ഞാൽ കപ്പ നമ്മൾ രണ്ട് മൂന്ന് തവണ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചു ഊറ്റി എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് നമ്മള് കപ്പ കൊത്തി അരിഞ്ഞ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വേവിക്കുന്നത് അതെൻ്റെ അരപ്പെന്ന് പറയുന്നത് രണ്ട് ഒരു രണ്ട് ചെറിയുള്ളിയും കുറച്ച് തേങ്ങായും ഒക്കെ വച്ചാണ് അതിൻ്റെ ജീരകവും ഇച്ചിരി ജീരകവും കൂടെ വച്ചിട്ടാണ് നമ്മൾ അതിനെ അരപ്പ് തയാറാക്കുന്നത് കാന്താരി മുളകാണ് എറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾക്ക് അരപ്പിന് ഏറ്റവും നല്ലത് ഇത്രയും വച്ച് നമ്മൾ തേങ്ങ അരച്ചിട്ട് വെന്ത വെന്ത കപ്പയ്ക്ക് അകത്തോട്ട് നമ്മൾ ഈ അരപ്പിട്ട് ഇളക്കിയെടുക്കുകയാണ് തുടുപ്പ് കൊണ്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഒരു വിഭവമാണ് കപ്പയും കപ്പയ്ക്ക് കൂട്ടത്തിൽ നമ്മൾക്ക് ഇറച്ചിക്കറികൾ അതുപോല തന്നെ മീൻ കറികൾ ഒക്കെ നല്ല ഒരു വിഭവമായിട്ടാണ് നമ്മുടെ നമ്മൾ ആസ്വദിക്കുന്നത് ആ ഭക്ഷണത്തെ നാവിൽ രുചിയൂറുന്ന ഒരു വിഭവമാണ് കപ്പയും മീൻ കറിയും അതുപോലെ തന്നെ കപ്പയും ബീഫ് കറിയുമൊക്കെ കപ്പയ്ക്ക് ഏറ്റവും നല്ലത് മീൻ കറിയാണ് എല്ലാവരും കൂടുതലും ഇഷ്ടപ്പെടുന്നത് കപ്പയും മീൻ കറിയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവയിൽ എല്ലാം തന്നെയും കപ്പയ്ക്ക് നല്ലതാണ് അതുപോലെ തന്നെ പച്ചക്കപ്പ ആയിട്ട് നമ്മൾ കപ്പയെ വേവിക്കാറുണ്ട് അതുപോലെ തന്നെ ഉണക്ക കപ്പ ആയിട്ടും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പറമ്പുകളിലുണ്ടാകുന്ന നമ്മുടെ ചക്ക ചക്ക ചക്ക പുഴുക്ക് അതൊരു നല്ല ഒരു വിഭവമാണ് അതുപോലെ തന്നെ ചക്കപ്പുഴുപ്പ് ചക്കപ്പുഴുക്കിൻ്റെ കൂടെ ആണെങ്കിൽ പോലും മീൻ കറിയും അതുപോലെ തന്നെ ഇറച്ചിക്കറിയും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അച്ചാർ ആണെന്ന് പറഞ്ഞാലും നമ്മൾ ഉപയോഗിച്ചു കഴിക്കാറുണ്ട് അതൊക്കെ നല്ല ടെയിസ്റ്റ് തരുന്ന ഒന്നാണ് അതെപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനാണെങ്കിലും നല്ലതാണ് ചക്കപ്പുഴുക്കും ഒക്കെ അതുപോലെതന്നെ അത് ചക്കയുടെ സീസണിൽ നമുക്ക് ചക്ക കിട്ടാറുള്ളൂ അത് അതുപോലെ തന്നെ നമ്മൾക്ക് കാച്ചിൽ ചേമ്പ് ചേന ഇതൊക്കെ നമ്മൾ പുഴുങ്ങിയിട്ട് മുളക് കൂട്ടി കഴിക്കാറുണ്ട് തൈര് ഉടച്ചതാണെങ്കിലും കഴിക്കാറുണ്ട് അതൊക്കെ നല്ല ടേയിസ്റ്റ് നൽകുന്നത് വിഭവങ്ങളാണ് ചേന വർഗ്ഗങ്ങളും കപ്പ കപ്പ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ നല്ല രുചിയൂറുന്ന വസ്തുക്കളാണ്